ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇന്ത്യയിലെന്നല്ലാ പൊതുവെ എല്ലായിടത്തും തന്നെ എന്താ ഇന്ത്യയിലിപ്പോൾ ആശുപത്രി സംവിധാനങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ മെച്ചപ്പെട്ടോണ്ടിരിക്കുവാണ് ഇപ്പോൾ ഗവണ്മെൻറ്റ് വഴി അത്യാവശ്യം നല്ല രീതിക്ക് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലുകളൊക്കെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുവാണ് എന്താ പറയുക മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളൊക്കെ എന്താ പറയുക ഓൾമോസ്റ്റ് ജനങ്ങൾക്ക് അതായത് സാധാരണ ജനങ്ങൾക്കും അത്യാവശ്യം എന്താ പറയുക താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്ത് വരുന്നത് അപ്പോൾ നോർമ്മലി ഇപ്പോൾ എന്താ പറയുക ഇൻഷൂറ് ആരോഗ്യ ഇൻഷൂറ് പോലുള്ള കാർഡ്കള് അങ്ങനുള്ളതൊക്കെ കൊടുക്കുന്നതോടു കൂടി ആൾക്കാരിലേക്ക് നല്ല രീതിക്ക് ചികിത്സാ സഹായമൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ ചികിത്സക്ക് ആളുകളെ എന്ത് കൊണ്ടും ഹെൽപ്പ് ഫുള്ളായിട്ട് സഹായിക്കാൻ പറ്റിയൊരു ആശുപത്രി സംവിധാനമാണ് ഇപ്പോൾ കേരളത്തില് പോലെ ഇന്ത്യയില് തന്നെ എന്താ പറയുക ഗവണ്മെൻറ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഗവണ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എന്താ പറയുക നല്ല ശുദ്ധി ശുദ്ധമായിട്ടുള്ള പരിസരങ്ങള് എന്താ പറയുക ക്യൂവ് ചിലവ് സേവനം അങ്ങനെ എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലുകൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ഇപ്പം ഞാൻ കണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്